ആ ബ്ലാക്ക് ആന് വൈറ്റ് ഫോട്ടോഗ്രാഫി പരിക്ഷീച്ച് നോക്കിയിട്ടൊക്കെയുണ്ട് ഒരുപാട് പ്രാവശ്യം അങ്ങനെ നോക്കിയിട്ടുണ്ട് നമ്മുടെ പഴയ കാലത്തെ നമ്മള് കുട്ടിക്കാലാത്തെ ഫോട്ടോസൊന്നും നമുക്കൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളൊരു ഫോട്ടോസ് കിട്ടാന് എല്ലാവരുടെയും പോലെയും എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാന് എന്റെ ഒരു ഫോട്ടോ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഈ പഴയക്കാലത്തെപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലേക്ക് ആക്കി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊക്കെയുണ്ട് അങ്ങനത്തെ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാലമാണ് എന്നാണ് നമുക്കും തോന്നുക പക്ഷേ അത് ഫ്രെയിം ചെയ്ത് വച്ചതാണെന്ന് നമുക്ക് തന്നെ അറിയുള്ളൂ നമ്മള് അത് ചെറുപ്പക്കാലത്തെ പോലെയാണ് ആക്കിയിട്ടും നമ്മള് ചിലവർക്കുണ്ടാകും ചെറുപ്പക്കാലത്ത് ചെറിയ കുട്ടി വാവയൊക്കെ ആയ സമയത്ത് തന്നെ അവരുടെ അവര്ക്ക് അവരുടെ മാതാപിതാക്കള് ഫോട്ടോ എടുത്ത് ഫ്രയിം ചെയ്തുവച്ചിട്ടൊക്കെ ഉണ്ടാകും എന്നാൽ പൈസയുള്ളവരാണ് അങ്ങനെയൊക്കെ ചെയ്ക പൈസയില്ലാത്തവര് അങ്ങനെയൊന്നും ചെയ്യില്ല ആക്കാലത്ത് ഫോട്ടോയോ ക്യാമറയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ കാലഘട്ടത്തിലാണെങ്കില് എല്ലാവരും ഇപ്പോൾ ഒരു ഫോട്ടോ കിട്ടിയാൽ ഫോണിലൂടെ തന്നെ നമുക്ക് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനൊക്കെ സാധിക്കുന്നുണ്ട്